എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ്സോ കാര്യങ്ങളോ ഉള്ള വ്യക്തി അല്ല ഞാൻ ഞാൻ ബാങ്കിൽനിന്ന് റിട്ടയർ ആയ ഒരു സ്റ്റാഫ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള ബിസിനസ്സുകൾ ഒന്നുമില്ല പക്ഷെ ബാങ്കിൽ വരുന്ന ആൾക്കാർക്ക് ലോണും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കൊടുക്കും ബിസിനസ്സ് സംബന്ധമായ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സംബന്ധമായ ലോണുകളോ ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശം നൽക്കാറുണ്ട് അവർ മാനേജർടെ മുന്നോട്ട് ഫോർവേഡ് ചെയ്യാറുണ്ട് അതുപോലെ ഇന്നതാണ് പലിശ ഇന്നതാണ് അതിൻ്റെ കണ്ടിഷൻ ടെംസും കണ്ടിഷൻസും ഒക്കെ ഞങ്ങൾ വ്യക്തമാക്കി കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ തവണകളായി അടക്കുന്നതിന് കുറഞ്ഞ പലിശയുള്ള സ്കീമുകളും അങ്ങനെ എന്താ പറയുക ഡി ആർ ഐ പോലെ കുറേ സ്പോൺസേർഡ് ഗവൺമെൻറ്റ് സ്പോൺസേർസ് അഗ്രിക്കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് കോഴിവളർത്തൽ പശുവളർത്തൽ ഡയറി ഫാംസിന് അങ്ങനെ ഡയറി ഫാംസിന് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ കൂടുതൽ കൂടുതൽ സംരംഭങ്ങൾ സെൽഫ് എംപ്ലോയീമെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് ആൾക്കാർ ഞങ്ങൾ ലോക്കൽ ആയത് കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും ഞങ്ങളാൽ കഴിയുന്നത് പോലെയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ തരാറുണ്ട് ഞങ്ങളുടെ ബാങ്കിൻ്റെ സർക്കുലറുകളിൽനിന്ന് ഇതിനകത്ത് ഒക്കെ വ്യക്തമായ ഇതുണ്ട് സ്വർണപ്പണയം കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞ് കൊടുക്കുവാൻ ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് സ്വന്തമായ ഒരു ബിസിനെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനൊരു ഏർണിങ്ങ് ഞാൻ മാത്രമുള്ള ഒരു ഏർണിങ്ങ് മെമ്പർ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽനിന്ന് വന്ന് ഞങ്ങൾ ജോലി ചെയ്യും രാവിലെ പോവും ജോലി ചെയ്യും വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നതും വേറൊരു ബിസിനസ്സിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും അറിയത്തില്ല